ആലുവായിലുണ്ടായ മലിന ജലം അവിടെ പുഴയിലൊഴുകി ഒത്തിരി ലക്ഷങ്ങൾ ലക്ഷം മത്സ്യകൃഷിക്ക് കാരുടെ ഒരുപാട് കോടികൾ നഷ്ടമായി മീനുകളെല്ലാം ചത്തു പൊങ്ങി അപ്പേ പത്രങ്ങളിലും മാധ്യമങ്ങളിലും കൂടി എല്ലാം വന്നെ ഒരു വാർത്തയാണ് ഒത്തിരി കർഷകർക്ക് മത്സ്യ കർഷക മത്സ്യ കൃഷിക്കാർക്കു നഷ്ടങ്ങളും പലതും സംഭവിച്ചു എന്തോ മാലിന്യം ഫ കമ്പനികളിൽ നിന്നുള്ള മാലിന്യം പുഴയിലേക്ക് ആലുവ പുഴയിലേക്ക് ഒഴുകി അങ്ങനെ പത്രത്തിൽ വായിച്ചുള്ളൊരു അറിവ് ഉണ്ട് ആ അതുപോലെതന്നെ ഇപ്പോഴത്തെ വീടുകളിലും സാധനങ്ങൾ മേടിക്കുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം വെള്ളത്തിലിട്ട് അതും വെള്ളത്തിൽ അലിയാതെ കിടന്നു മറ്റുളേള മത്സ്യങ്ങൾക്കും അതുപോലെയുള്ളതെല്ലാം കാര്യങ്ങൾക്കും അതു പ്രകൃതിക്കു ദുരന്തമാകുന്നൊരു വസ്തുതയായി മാറിയിരിക്കുന്നു